എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്താണ് കുറച്ച് കൃഷിയുണ്ട് വാഴ വാഴയൊക്കെയാണ് അവിടെ കൂട്തലായിട്ടും കൃഷി ചെയ്യുന്നത് പക്ഷെ ഇവിടെ കൃഷി കൃഷി ചെയ്ത് നല്ല രീതിയിൽ എന്തായാലും ഒരു വിളവ് എടുക്കാൻ പറ്റാറില്ല കാരണം എന്ത് വച്ചാൽ മ്യഗങ്ങളുടെ ശല്യം അതായത് പന്നിയുടെ ശല്യം വളരെ രൂക്ഷമാണ് എന്താച്ച് കഴിഞ്ഞ വാഴ വച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക വെണ്ട ഉണ്ട് വെണ്ട കൃഷിയുണ്ട് പിന്നേ തക്കാളി പിന്നേ മത്തൻ കുമ്പളം അങ്ങനെ വെള്ളരി അങ്ങനെ ഒരുപാട് തരം കൃഷികളുണ്ട് ചീരകൃഷി ഉണ്ട് പക്ഷെ എന്തുവച്ച് കഴിഞ്ഞ ഒന്നും നല്ല രീതിയിൽ വിളവെടുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ പന്നി ശല്യം പന്നി ശല്യം വളരെയധികം വളരെ നല്ലോണം ഉണ്ട് ഈ വാഴയൊക്കെ കുത്തിമറിച്ചിടും പിന്നെ അത്രയും ഐക്ക് വേണ്ടുന്ന എല്ലാതും മേടിക്കണം പിന്നെ ഒരാളെ വിളിച്ച് പണി എടുപ്പിക്കണം അതിന് അതിന് സമ്പത്തികായിട്ട് നല്ല ചിലവുണ്ട് ഒരാളെ വച്ച് പണിയെടുപ്പിക്കും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അതിനായിട്ട് ചിലവും കാര്യങ്ങളുമൊക്കെയുണ്ട് അത്രയും ചെലവെടുത്ത് നമ്മൾ ഇത് ചെയ്തു വരുമ്പോൾ ഈ മൃഗങ്ങളുടെ ശല്യം എന്താണ് പന്നിനെ കൊണ്ടുള്ള ഒരു ശല്യം എന്ത് വച്ച് കഴിഞ്ഞാൽ വാഴയൊക്കെ വച്ച് കുറച്ച് ഒന്നൊന്ന് പൊന്തി ഇങ്ങനെ വരുമ്പഴേക്ക് അത് കുത്തിമറിച്ചിട്ട് പോവും പിന്നെ അതിന് തടയാനുള്ളൊരു മാർഗ്ഗം എന്ന് വച്ചാൽ ഞങ്ങൾ കമ്പിവേലി കെട്ടി അടച്ച് വച്ചിട്ടുണ്ട് കമ്പിവേലിയൊക്കെ കെട്ടിയിട്ട് ഇതായിട്ടുണ്ട് പക്ഷെ എന്നാൽ കൂടിയും ഈ കമ്പിവേലിയൊക്കെ കെട്ടുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്നിട്ടൊക്കെ ഇത് കുത്തി മറിച്ചിട്ട് പോവും പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് കൃഷിയുണ്ട് അത് കുറച്ച് കപ്പയും പിന്നെ അങ്ങനെ ചേമ്പും അങ്ങനെ ഉള്ള കൃഷികളുണ്ട് അതൊക്കെ അതേ മാതിരി എന്താണ് കപ്പ ഒക്കെ ആണെങ്കിൽ ഒന്ന് നല്ലോണം കമ്പൊക്കെ ഒടിച്ച് മറിച്ച് കുത്തിയിട്ട് പോവും എന്താണ് ഇത് എന്താണ് അവിടേയും ഇതേമാരി കമ്പിവേലിയൊക്കെ കെട്ടിയിരിക്കുകയാണ് പക്ഷെ അത് കൊണ്ടൊന്നും ഇതിനെ തടയാനുള്ള ഒരു ഇതില്ല ഒര് കൃഷിക്ക് അനിയോജ്യം അനുയോജ്യമായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല എന്താണ് പറയുക നല്ല രീതിയിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല